നമസ്കാരം മലയാളം ഭാഷ അത് ഞങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെയും ഭാഷയായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ന് മലയാളം ഭാഷക്ക് എത്ര പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാലും സം നമ്മുടെയെല്ലാം സംസ്കാരങ്ങൾ മറ്റു മലയാള ഭാഷയിലൂടെയാണ് വേറെ ഏതെല്ലാം ഭാഷകൾ വന്നാലും മലയാളത്തിൻ്റെ സ്ഥാനം അത് മലയാളികളുടെ മനസ്സിൽ ഒന്നാം സ്ഥാനത്തു തന്നെ ഭാഷകളുടെ സ്ഥലത്തിൽ ഒന്നാം സ്ഥാനത്തു തന്നെ മലയാളമുണ്ടാകും ഏതൊരു മ മലയാളിയെയും നമു നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുന്നത് അവൻ മലയാളിയാണ് എന്നുള്ള കാരണം കൊണ്ടാണ് അത് നമ്മളുടെ മലയാള ഭാഷയും നമുക്ക് നൽകിയിട്ടുള്ള ഒരു വരദാനമാ മാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിലുള്ള പല കാര്യങ്ങളും അത് മലയാളത്തിലൂടെ മാത്രം ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരം തന്നെ മലയാളം കേന്ദ്രീകൃതമായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിലും നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നമുക്ക് നൽകുന്നതിൽ മലയാള ഭാഷ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല നമ്മെ നന്നാക്കുവാൻ മലയാളം അത്രമേൽ കഷ്ടപ്പെട്ടു അതിനുള്ള ഉദാഹരണമാണ് നമ്മുടെ ഭാവനകൾക്കും ചിന്തകൾക്കും ചിറകേകിയിട്ടുള്ള ഭാഷ അത് മലയാളമാണ് നമ്മുടെ കഴിഞ്ഞു പോയ കവികളിൽ പലരും കുമാരനാശാൻ ഉറൂബ് തുടങ്ങിയിട്ടുള്ള പലരും ഇന്ന് മ അവരെല്ലാം മലയാള ഭാഷക്ക് വേണ്ടി പ്രത്യേകിച്ച് സംഭാവന നൽകിയിട്ടുള്ളതാണ് എഴുത്തച്ഛനാണ് ഈ ഒരു ഭാഷയുടെ ഫി പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്നാലും ഇന്നും ഈ ഭാഷ വളർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഭാഷ പണ്ഠിതരുടെയും മറ്റും ഇടപെടലുകൾ ഈ ഭാഷക്ക് വളരെയധികം മികച്ച രീതിയിൽ തന്നെ ജീവിക്കാനായിക്കുന്നു ഇന്ന് മലയാള ഭാഷാ മാ മറ്റെല്ലാ ഭാഷകളെ പോലെ ഒരു പ്രതിസന്ധികളിൽ പലതരം നേരി നേരിടുന്നുണ്ട് അത് ഈ പ്രതിസന്ധകളെല്ലാം ത തരണം ചെയ്തു മുന്നോട്ടു തന്നെ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റു ഭാഷകളുടെ പോലെ അധഃപതനത്തിൻ്റെ പാതിയിലേക്ക് മലയാള ഭാഷ ചെറുതായിട്ടൊക്കെ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ മലയാളികൾ ഇതിനെ വീണ്ടും പ്രജീവിപ്പിക്കണം മലയാളം എന്നുള്ളത് നമ്മളുടെ കേരളത്തിലെ ഭാഷ മാത്രമായി ഒതുക്കാതെ ലോകത്തിൻ്റെ തന്നെ ഒരു ഭാഷയായി നമുക്ക് മാറ്റാം ഞാൻ പോകുന്നിടത്ത് എല്ലാം നമുക്ക് മലയാളി മലയാളം സംസാരിക്കാനാണ് മലയാളം സംസാരിക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണം ഇന്ന് എന്തിനും ഏതിനും ഇംഗ്ലീഷ് ഫസ്റ്റ് എന്നും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടും മലയാളം ആയിക്കൂട എന്നുള്ളതും നാം ഇപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട് യൂണിവേഴ്സിറ്റികളിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ മലയാളത്തിന് വേണ്ടിയിട്ട് സ്പെഷലായിട്ടുള്ള ഒരു ഒരു ക്ലാസ് റൂം പ്രത്യേകമാണ് എന്ത് കേരളത്തിലെ സ്കൂളുകളിൽ മലയാളം രണ്ട് വിഷയമായി എടുത്തു പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അത് നിർബന്ധമാക്കുകയും ഓപ്ഷണൽ എന്നുള്ളതിൽ നിന്നെല്ലാം ഒഴിവാക്കുകയും ചെയ്യണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു